കൂടുതൽ ഇഷ്ടം പിന്നെ മലയാള സിനിമകളാണ് കാണാൻ ഇഷ്ടപ്പെടുന്നതും എന്നാൽ കുടുംബമായി കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് വീട്ടിലിരുന്ന് കുടുംബമായിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകളാണ് കാണാൻ കൂടുതൽ ഇഷ്ടം പ്രിയപ്പെട്ട നടൻ എന്ന് വെച്ചാൽ മോഹൻലാൽ മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും ഇഷ്ടമാണ് ജയറാം ജയറാംനെ ഇഷ്ടമാണ് ജയറാം കുടുംബൻ്റെ കുടുംബ കുടുംബ ചിത്രങ്ങളും ഇഷ്ടമാണ് നടി ശോഭന ശോഭന നല്ലൊരു നടിയാണ് ശോഭനേനെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള പാട്ടുകാരൻ യേശുദാസ് പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം യേശുദാസിൻ്റെ എല്ലാ പഴയ പഴയകാല സിനിമകളിലെ പാട്ടുകളും കൂടുതൽ ഇഷ്ടമാണ് നല്ല നല്ല പാട്ടുകളാണ് യേശുദാസിൻ്റെത് നമുക്ക് യേശുദാസിൻ്റെ സിനിമാപാട്ടുകളും ഭക്തി ഗാനങ്ങളെല്ലാം കേൾക്കാൻ നല്ല രസമാണ് പണ്ടത്തെ പാട്ടുകൾ കേട്ടാൽ നല്ല നല്ല നല്ല പാട്ടുകളാണ് യേശുദാസ് പാടിയിരിക്കുന്നത് അതുകൊണ്ട് യേശുദാസിനെ